ഹലോ ഇത് ഹൃദയ റെസ്റ്റോറന്റ്റ്റ അല്ലെ ഞാനവിടുന്നു ഒരു രണ്ടുമൂന്ന് ഫുഡ് ഐറ്റംസ് ഡെലിവര് ഓര്ഡര് ചെയ്തുണ്ടായിരുന്നു ഒരു കേക്കും ഒരു ചിക്കന് നൂഡില്സും ഒരു ഫലൂദയും അപ്പോൾ എന്താണെന്ന് വെച്ചാല് ഇപ്പോൾ ഞങ്ങള്ക്ക് വീട്ടിൽ നിന്ന് ഒന്ന് പുറത്ത് പോകണ്ട ഒരാവശ്യം വന്നു അപ്പോൾ ഡെലിവറി അഡ്രസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങള് വീട്ടിലത്തെയാണ് അതൊന്നു മാറ്റാന് വേണ്ടിയിട്ട് ആയിരുന്നു നമ്മൾ എക്സ്ട്ര വരുന്ന ചാര്ജ് എന്താണെന്ന് വെച്ചാൽ പേ ചെയ്യാം ആഹ് ഇപ്പോൾ ഞങ്ങള്ക്ക് ഡെലിവര് ചെയ്യണ്ടത് അത് കോട്ടക്കുന്ന് പാര്ക്കിലേക്ക് എത്തിക്കാന് വേണ്ടിയിട്ടായിരുന്നു അത് ഞങ്ങള് കോട്ടക്കുന്ന് ഇതിന്റെ മുകളിലാണുള്ളത് നിങ്ങളവിടെ എത്തിയിട്ട് ഒന്നു വിളിച്ചാൽ മതി അതെ അതെ അതെ ഞങ്ങള് അഞ്ചാള്ക്കാരുണ്ട് എത്ര സമയം പിടിക്കും ഒക്കെ ഒരു പതിനഞ്ച് മിനിറ്റിലെത്തും അല്ലെൽ എന്നാല് ഞങ്ങള് ഞങ്ങളവിടുന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് വിളിക്കാം എന്നാൽ ആ നേരം ആവുമ്പോഴേക്കും അവിടെ മുകളില് വെയിറ്റ് ചെയ്യാം ഒക്കെ ഒക്കെ താങ്ക്യൂ താങ്ക്യൂ